നീന്തല് പടിക്കുന്നതിന് സാധാരണ ചെയ്യുന്ന തെറ്റുകളെന്ന് പറഞ്ഞാല് നമ്മള് നീന്തൽ അറിയാതെ നീന്തൽ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾക്ക് നീന്തലായി എന്ന് നമുക്ക് പഠിച്ച് കഴിഞ്ഞൂ എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് നമ്മൾ പോയി വലിയ ആഴമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാന് പോകുന്നത് അതൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ നീന്തൽ പഠിക്കുന്നത് പഠിച്ച് തുടങ്ങി ഒരു മാസം ഒരു രണ്ട് മാസമൊക്കെ ആവുമ്പം തന്നെ നമ്മൾ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം നീന്തി പഠിക്കാന് നോക്കുക അല്ല നമ്മൾ വലിയ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ആ ആറുകളിലൊക്കെ നീന്തണം എന്ന് ഞാൻ പറയില്ല കുളങ്ങൾ കുളങ്ങളിലൊക്കെ മാത്രമേ നീന്തൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ നീന്താന് പാടുള്ളൂ ആറുകളിലൊക്കെ പോയി നീന്തിക്കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് അറിയാന് പറ്റില്ല എവിടെയക്കെയാണ് നല്ല ആഴമുള്ള കുഴികളുള്ളത് അങ്ങനെയൊന്നും പറയാന് പറ്റില്ല അത്കൊണ്ട് തന്നെ സോ പെട്ടെന്ന് നമ്മൾ ആ കുഴിയൊള്ളെക്കാന്ന് പോവാന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ അറിയാം നീന്തൽ പഠിച്ച് തുടങ്ങിയെന്ന് പഠിച്ച് കഴിഞ്ഞൂ എന്നൊക്കെ പ്രതീക്ഷിച്ച് കൊണ്ട് കൊ ചെറുതായിട്ടൊക്കെ അറിയാന്നവർ പോയി ആറ്റിലൊക്കെ മഴ സമയത്തും അങ്ങനെ ഉള്ള സമയത്തൊക്കെ പോയി ഇറങ്ങി ആറ്റില് പോയതും മരിച്ച് പോയതുമൊക്കെ നമ്മൾ അറിഞ്ഞ് കാണും ഒരുപാട് പേര് നമുക്ക് ഒരുപാട് വാര്ത്തകള് മഴ സമയം ആപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അകപ്പെട്ട് മരിച്ച് പോയി എന്നൊക്കെ ബാ പറയുന്ന കാര്യങ്ങൾ ഞാനും നീന്തൽ പഠിച്ച സമയത്ത് എനിക്കും തോന്നിയതാണ് നീന്തി തുടങ്ങിയല്ലൊ നല്ലോണമായല്ലൊ ഇനി നമുക്ക് എവിടേയും പോയി നീന്താമെന്ന് പറഞ്ഞ് പോയപ്പോൾ എന്നെ പഠിപ്പിച്ചു തന്ന ഒരു അണ്ണനായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു നീ ഇപ്പോഴേ നീന്താമെന്ന് അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും പോവരുത് നമ്മൾ അങ്ങനെ നമുക്ക് പെട്ടന്ന് വിചാരിക്കുക നമ്മളെല്ലാം പഠിച്ചുവെന്ന് തോന്നും പക്ഷെ അങ്ങനെ ആയിട്ടില്ല നമ്മൾ ഒരു നല്ലോണം ഒരു ഒരു വര്ഷമെങ്കിലും നമ്മൾ നല്ലോണം നീന്തി പഠിച്ചാല് മാത്രമേ നമുക്ക് നല്ല ആഴമുള്ള സ്ഥലത്തൊക്കെ പോവു പിന്നെ പിന്നേ പിന്നെ നമ്മൾ നീന്തിപ്പഠിച്ച് നീന്തലായി കുറച്ചൊക്കെ പഠിച്ചവർ ഒരു കാര്യം ശ്രദ്ധിക്കുക മഴ സമയത്തൊന്നും നീന്താന് വേണ്ടി പോകരുത് നീന്താൻ വേണ്ടി പോയിക്കഴിഞ്ഞ് മഴസമയത്തൊക്കെ പോയിട്ട് എപ്പോൾ വേണെ വെള്ളം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നല്ല ട്രെയ്ൻഡ് ആയിട്ടുള്ള നീന്തേസ്നെക്കൊ നീന്തൽകാരന്മാരെ കൊണ്ട് മാത്രമേ മഴ സമയത്തൊക്കെ നീന്താൻ കഴിയുകയുള്ളു ഒരു പക്ഷെ നല്ല വെള്ളം വന്നാൽ തന്നെ നല്ലവണ്ണം നല്ലവണ്ണം ഒരു പത്ത് പതിനഞ്ച് വര്ഷം ഇതൊക്കെയുള്ള എക്സ്പീരിയസൊക്കെ ഉള്ളവര്ക്ക് അത് തന്നെ കൊച്ചിലെ പഠിച്ച് അങ്ങനെ ആയവര്ക്ക് മാത്രമേ അതിനൊക്കെ കഴിയുകയുള്ളു അല്ലാതെ ആരും അല്ലാത്തവർ ആരും പോയി പ്രയത്നിക്കാന് നോക്കരുത് എന്നാൽ അവര്ക്ക് ആ അപ്പം എവിടേയ്ക്ക് പെട്ടെന്ന് അവര്ക്ക് നീന്തി പൊങ്ങാൻ അവർക്ക് അടിയിൽ തന്നെ മുങ്ങിനിൽക്കാനുള്ള കഴിവ് കാണും എന്ന് പറഞ്ഞാൽ ഒരു എപ്പോഴും നീന്താനൊക്കെ പോവുന്നവരായാലും അല്ലെങ്കിൽ എപ്പോഴും നീന്താൻ പോവുന്നവരായാലും ആ കഴിവ് കാണും എന്ന് പറഞ്ഞാൽ അവര്ക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കൂട്തല് നേരം ശ്വസിക്കാന് കഴിയും ശ്വസിച്ച് അതിന്റെ അടിയില് നിൽക്കാൻ കഴിയും അപ്പം വെള്ളം പോവുന്നത് വരെ അവർ നിൽക്കും എന്നാലും നമ്മൾ അല്ലെങ്കിലും ട്രേയ്നേസ്സാണെങ്കില് പോലും അങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞത് കാരണം നമ്മൾ ആ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പല ട്രേയ്നേഴ്സ്സ് നല്ല നല്ല എക്സ്പീരിയന്സ് ഉള്ളവർ വരെ വെള്ളത്തില് പോയിട്ടുള്ളത് വെള്ളത്തിൽ അകപ്പെട്ട് മരിച്ച് പോയിട്ടുള്ളത് പിന്നെ നമ്മൾ ജീവിതത്തിൽ ഒരു ഏറ്റവും കൂടുതൽ പ്രധാന്യം വഹിക്കുന്ന ഒരു സാധനമാണ് നീന്തൽ നമ്മൾ ഇ എല്ലാ കുട്ടികള്ക്ക് നമ്മൾ പഠിത്തം പഠിത്തം കൊടുക്കും പോലെ തന്നെ അവര്ക്ക് നീന്തലും കൂടി പഠിപ്പിച്ച് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു എന്റെ അഭിപ്രായത്തിൽ ഞാന് പറയുന്നത് കാരണം നീന്തൽ പഠിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ കുട്ടിക്കള് പോവുകയാണ് വെള്ളത്തിൽ വല്ലതും അകപ്പെട്ട് പോയി അവര്ക്ക് നീന്തൽ അറിയാമെന്നുണ്ട് എന്നുണ്ടെങ്കില് അവർക്ക് പെട്ടെന്ന് നീന്താം ഒരു പക്ഷെ വല്ല ഫോറസ്റ്റിൽ ഫോറസ്റ്റിൽ അങ്ങനെ ഒക്കെ വല്ല കാര്യങ്ങൾക്ക് പോയപ്പോൾ വല്ല ആനിമല്സ്സോ അങ്ങനെ വല്ലോം ആക്രമിക്കുക ആണെങ്കിൽ പെട്ടെന്ന് നീന്താൻ അറിയാവുന്നവരാണ് എന്നുണ്ടെങ്കില് അടുത്ത് വല്ല റിവറോ അങ്ങനെ വല്ലോം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ചാടി അവര്ക്ക് നീന്തി രക്ഷപ്പെടാവുന്നതാണ് ഒരു പാട് നീന്തൽ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഒരു പക്ഷെ നിങ്ങൾ സ്ട്രെസ്സ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ രക്ഷപ്പെടാന് വേണ്ടി പെട്ടെന്ന് നമുക്ക് എന്തു ഒരുപാട് ഡിപ്പ്രഷൻ സ്ട്രെസ്സൊക്കെ ഇതിരിക്കുന്ന സമയത്താണന്നു ണ്ടെങ്കിൽ നമുക്ക് നീന്തലൊക്കെയാണ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് നീന്തിയപ്പോൾ തന്നെ നമക്ക് ഒരുപാട് ആശ്വാസം കിട്ടും ഇതുപോലെ തന്നെ നീന്തലെന്ന് പറഞ്ഞാ ഞാന് പറഞ്ഞത് പറഞ്ഞതിൻ്റെ കാരണം ഒരു ഒരു മനുഷ്യൻ ശരാശരി ഒരു മനുഷ്യൻ നീന്തൽ എന്നൊരു കാര്യം പഠിച്ചിരിക്കണം അത് എക്സ്പ്പേട്ട്കാര്ക്ക് മാത്രമല്ല എല്ലാവരും നീന്തൽ എന്ന കാര്യം പഠിച്ചിരിക്കണം നീന്തൽ എന്ന ഒരു ആര്ക്കും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ആര്ക്കും ഇഷ്ടം അല്ലാതാകാത്ത ഒരു കാര്യമാണ് നീന്തലെന്ന് പറഞ്ഞത് എല്ലാവര്ക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നീന്തലെന്ന് പറഞ്ഞ കാര്യം പിന്നെ നമ്മൾ പല ആറുകള് തോടുകൾ അങ്ങനെ പല രീതിയില് നീന്താൻ വേണ്ടി പോവും നമ്മൾ ഒരു നീന്തലിനാണ് അക്കാദമി ഇപ്പോൾ സിമ്മിങ്ങിനായിട്ട് തന്നെ സിമ്മിങ്ങ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെയൊക്കെ പോയി പഠിക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ അവിടെ ഒക്കെ ബട്ജ് നല്ല പൈസയാവും പിന്നെ ചിലവരൊക്കെ അടുത്തൊക്കെ ഉള്ള ഒരു ആറിൽ കുളങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം കുളത്തിലൊക്കെ നീന്താന് പഠിപ്പിക്കുന്നുണ്ടായി ഇപ്പം കുട്ടികളൊക്കെ ഞാനും കുറേ കുളത്തിൽ കുളത്തിൽ നീന്താനാണ് പഠിക്കാന് പോയിട്ടുള്ളത് അങ്ങനെ അപ്പോൾ അവർ അവിടെ നല്ലോണം പ പഠിപ്പിച്ച് തരും അങ്ങനെ ആദ്യം ഒരു നാള് മറ്റെ മഗ്ഗ് സിമ്മിങ് ചെയ്യാൻ വേണ്ടി നമ്മളെ അവിടെ ഒക്കെ റ്റൂബാണ് ഉള്ളത് പിന്നെ മറ്റേനായിട്ട് അവടെ ഒക്കെ സിമ്മിങ്ങിനായിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങളൊക്കെ അവിടെയാണ് സിമ്മിങ്ങിനുള്ളത് അക്കാഡമിയില് പോയി കഴിഞ്ഞാൽ അല്ലാതെ നമ്മളൊക്കെ പഠിക്കുന്ന സമയം നമ്മളൊക്കെ പഠിപ്പിച്ച പഠിച്ച സമയം റ്റൂബൊക്കെ ഇട്ട് അതിൻ്റെത്താണ് നമ്മൾ നീന്തിപ്പഠിക്കുന്നുള്ളത് അത് കൊച്ചു കുട്ടികളെന്ന് പറയപ്പൊ അവര്ക്ക് പണ് ഒരു അഞ്ച് വയസിനൊക്കെ താഴെയുള്ള കുട്ടികള്ക്ക് നീന്തല് പഠിക്കാന് എളുപ്പമായിരിക്കും കാരണം അവർ വെള്ളത്തിന്റെ മുകളില് പൊങ്ങി കിടക്കും ഒരു മൂന്ന് വയസൊക്കെയുള്ള കുട്ടികളാണെ എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് മുകളിൽ അവര്ക്ക് പൊങ്ങി കിടക്കാന് കഴിയൽ അപ്പം അവർ പൊങ്ങി കാരണം വെള്ളത്തിന്റെ അവർക്ക് വേയ്റ്റ് കുറവായത് കൊണ്ട് തന്നെ അവർ വെള്ളത്തിന് വെണ്ട പൊങ്ങിക്കിടക്കും അങ്ങനെയുള്ള സമയത്ത് നീന്തല് പഠിപ്പിക്കാന് നോക്കുക കുട്ടികളെ നമ്മുടെ കുട്ടികളെ നം നീന്തലെന്നൊരു കാര്യം അത് പഠിപ്പിക്കുക തന്നെ വേണമെന്നാണ് ഞാന് പ എൻ്റെ അഭിപ്രായത്തിൽ ഞാന് പറയുന്നത് അവർ നീന്തൽ പഠിക്കണം നീന്തൽ പടിക്കപ്പം അവര്ക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നീന്തൽ എന്നത് ഇതിന് കാര്യം കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങള് നമ്മൾ നമ്മുടെ ജീവിതത്തില് ഉണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നീന്തലെന്ന് പറയുമ്പോൾ ആല്ലമ്മപ്പം എവിടെയെങ്കിലും പോയി ഒരു ഒരു പക്ഷെ ബോട്ട് മറിയുക നമ്മൾ വല്ല ബോട്ടിലോ അങ്ങനെയൊക്കെ വല്ല സഞ്ചരിക്കുന്ന സമയത്ത് ബോട്ടോ അങ്ങനെ വല്ലതും മറിയുക മറിഞ്ഞ് വീഴുക പെട്ടെന്ന് നമ്മൾക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയും പിന്നെ നമ്മളെ കൂടെയുള്ളവെരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും പിന്നെ ഒരിക്കലും വല്ല ആറ്റിലോ തോട്ടിലോ ഒക്കെ പോയി നീന്തി കളിക്കുമ്പോൾ നീന്തൽ അറിഞ്ഞു കൂട നീന്തലുള്ളവരെ നീന്തൽ അറിയാം അറിയാവുന്ന ഒരു അറിയാവുന്ന ആളുകളെ കൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവർ അറിയുക അപ്പോള് നിങ്ങൾക്ക് അറിഞ്ഞു കൂട നിങ്ങൾക്ക് കുറച്ചേ അറിയാവു അപ്പോൾ അവർ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോവാതിരിക്കുക കാരണം അവർ അങ്ങ് നല്ലോണം നീന്തി നീന്തി നീന്തിയങ്ങ് പോവും അപ്പം അവരെ പിറകേ നമ്മൾ പോവാതിരിക്കുക നമ്മൾ വെള്ളം കുറഞ്ഞ സ്ഥലം എവിടെയുണ്ട് അവിടെ മാത്രം നിന്ന് നമ്മൾ കളിക്കുക അല്ലാതെ അവരെ കൂടെ പോയി അവര്ക്ക് പെട്ടെന്ന് വല്ല കുഴിയോ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കില് അവര്ക്ക് പെട്ടെന്ന് നീന്തിക്കയറാൻ കഴിയും പക്ഷെ ചിലപ്പം നമ്മൾക്ക് കയി കഴിയുകയില്ല പിന്നെ ഒരിക്കലും ആറുകളിൽ നമ്മൾക്ക് പരിചയമില്ലാത്ത ആറുകളില് പോയി ഒറ്റയടിക്ക് നീന്താൻ വേണ്ടി ചാടരുത് ചാടി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾക്ക് അറിയാന് കഴിയില്ല എവിടെയൊക്കെയാണ് കുഴിയുള്ളത് എവിടെയൊക്കെയാണ് അങ്ങനെ ഒക്കെ നമുക്ക് അറിയാൻ കഴിയില്ല അത്കൊണ്ട് പെട്ടന്ന് അങ്ങ് താഴ്ന്ന് പോവും അപ്പം അതൊ ക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഒരു രക്ഷിതാവെന്ന നിലയ്ക്ക് നം കുട്ടികള്ക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലെ നീന്തൽ അങ്ങനെ ഉള്ള ഒരു കാര്യം കൊടുക്കണം കാരണം അവരുടെ ജീവൻ ചിലപ്പം നീ എവം വെള്ളം കൊണ്ടുണ്ടാവുന്ന ഒരു ആപത്തിന് ഇപ്പം അവര്ക്ക് രക്ഷപെടാൻ കഴിയും അത് മാത്രമല്ല ചിലപ്പോൾ അവർ കണ്ടോണ് നിക്കാന്നേരത്ത് വല്ല ആരെങ്കിലും വെള്ളത്തിൽ വീണ് അങ്ങനെ കിടക്കുന്നവരെ നമുക്ക് രക്ഷിക്കാനെങ്കിലും കഴിയും അപ്പം നമ്മൾ നീന്തലെന്ന ഒരു കാര്യം പഠിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക അതാണ് ഏറ്റവും മെയ്നായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ജീ ജീവിതത്തിൽ നീന്തലെന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിച്ചിരിക്കണം അത് ഞാനും മനസ്സിലാക്കിയത് എന്റെ എന്നെ നീന്തൽ പഠിപ്പിച്ച ചേ ആ കാക്ക കാക്ക പറഞ്ഞ് തന്നപ്പോഴാണ് ഞാനും അത് മനസ്സിലാക്കിയത് കാരണം ഇവരിത്രയും ഞാനും വിചാരിച്ചു നീന്തൽ കൊണ്ട് നമുക്ക് വലിയ ഇത് കാണില്ല എന്ന് പക്ഷെ നീന്തൽ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നീന്തല് കൊണ്ടറിയാവുള്ളു നീന്തലറിയാവ്ന്നൊണ്ടെങ്കി പല ജോലികള് വരെ അമക്ക് കിട്ടും അങ്ങനെ നീന്തലെന്നൊര് കാര്യം നമ്മള് ജീവിതത്തില് ഒരുപാട് ഒരുപാട് ഒരു ആവിശ്യമുള്ള ഒരു കാര്യമാണ് അപ്പം എല്ലാവരും നീന്തൽ പഠിച്ചിരിക്കണം എന്നാണ് ഞാന് എൻ്റെ അഭിപ്രായത്തില് ഞാന് പറയുന്നത്